എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെയർ ജെല്ലാണ് ഇപ്പം ഹെയർ ജെല്ലിനെ കുറിച്ച് പറയാണെങ്കില് ഇപ്പോൾ ഏകദേശം ആൺകുട്ടികളാണ് കൂടുതലായിട്ടും ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നത് അപ്പം അവർക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തല ഇപ്പ ചീവി എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോല തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നത് അപ്പ അതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത് മുടി വേഗന്ന് നരയ്ക്കുക താരൻ വരിക മുടി കൊഴിയുക അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് ചിലർക്ക് ഈ ഹെയർ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാല് അത് കണ്ണിലേക്കൊഴുകി വീണ് കണ്ണും ഒക്കെ എരിയുക അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് കാഴ്ച്ചേനെ വരെ ബാധിക്കുന്ന ഒന്നാണ് ഹെയർ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അത് ഓവറ് നമ്മള് യൂസ് ചെയ്യാണ്ടിരിക്കുന്നയാണ് കുറച്ചും കൂടി നല്ലത് നമുക്ക് തലവേദനയെല്ലാം കുറയും അങ്ങന പല രീതിയിലുള്ള മാറ്റങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ടാവും അപ്പം അതുകൊണ്ട് ഹെയർ ജെല്ല് നമ്മള് യൂസ് ചെയ്യാണ്ടിരിക്കുക